നമ്മുടെ പാരമ്പര്യ സവിശേഷതകളെ പ്രചരിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും ഈ പണ്ടു കാലത്തെ കളികൾ വളരെ അധികം പങ്കുവഹിക്കുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ പുതുതലമുറയിലെ കുട്ടികൾക്ക് പഴയ നമ്മുടെ സംസ്കാരത്തെ തൊട്ടുള്ള കളികളെ പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല ഈ കളികളെല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൈമാറുകയാണെങ്കിൽ അത് വളരെ ആസ്വദിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് പണ്ടത്തെ നമ്മുടെ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടു പോകുവാനും എല്ലാത്തിനും ഈ കളികൾ വളരെ അധികം സ്വാധീനിക്കാറുണ്ട് ഉദാഹരണത്തിന് പണ്ടത്തെ കളികളായ കുട്ടിയും പുള്ളേ ഗോലി കളി ഇത്തരത്തിലുള്ള കളികളെ പറ്റിയൊന്നും ഈ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഒന്നും അറിയില്ല അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അതവരുടേക്ക് അവർക്ക് കൈമാറുകയാണെങ്കിൽ അത് വളരെ അധികം ആസ്വദിക്കുവാനും നമ്മുടെ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും